ആ എൻ്റെ സ്ഥലം കുട്ടനാടാണ് കുട്ടനാട്ടിലെ ഒരു എന്താണ് പ്രധാന തൊഴിൽ എന്നു പറയുന്നത് കുട്ടനാട്ടുകാർ പൊതുവെ കൃഷിക്കാരാണ് അതായത് ഒരുപാടു നെല്ലും നെൽപാടങ്ങളും ഒരുവിധം എല്ലാവരും അതായത് എന്റെ ഗ്രാൻ്റ് എൻ്റെ ഒരു ഗ്രാൻ്റ് പേരെന്റ് ജനറേഷൻ എല്ലാവരും തന്നെ കൃഷിക്കാരായിരുന്നു അതു കഴിഞ്ഞു വന്ന നെക്സ്റ്റ് ജനറേഷൻ ആൾക്കാർ ഒന്ന് കഷ്ടപ്പാട് മെനക്കേട് പാടത്തുള്ള പണി കാര്യങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് ഇല്ലായ്മ അങ്ങനെ ഒരു പൊതു സമൂഹത്തിന്റെ ചിന്താഗതി കൊണ്ട് ഒരുപാട് ആൾക്കാർ അത് വിട്ട് പോയിട്ടുണ്ട് എന്നാലും അത് തുടരുന്ന ആൾക്കാരും ഉണ്ട് പഴയ ന്യൂ പുതിയ പഴയ കൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് കൾട്ടിവേഷൻ ഒക്കെ മാറ്റി പുതിയ രീതിയിലേക്ക് ഒരുപാട് ചേഞ്ച്സ് കൊണ്ട് വന്നു ഇപ്പോൾ കൃഷി ചെയ്യാത്ത സമയത്ത് കണ്ടം വെറുതെ കിടക്കാതെ അവിടെ മീൻകൃഷി ചെയ്യുകയും അല്ലെങ്കിൽ കുറച്ചു പൊങ്ങിയ പ്രദേശമാണെങ്കിൽ അവിടെ വെള്ളം വറ്റിച്ച് കണ്ടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും പിന്നേ താറാവ് അങ്ങനത്തെ കൃഷികൾ നടത്തുകയൊക്കെ ചെയ്യാറുണ്ട് കൃഷി അന്യം നിന്നു പോയിട്ടില്ല കുട്ടനാട്ടിൽ നിന്നും പക്ഷെ കൃഷി എന്താണ് പറയുക വളരെ അധികം എന്താണ് ആൾക്കാർ പണ്ട് കൃഷി ഫോളോ ചെയ്തിരുന്ന ആൾക്കാരിൽ നിന്നും ഭയങ്കര ഒരു ശതമാനം ആൾക്കാർ അത് ഫോളോ അത് ഡ്രോപ് ചെയ്തു പോയ ആൾക്കാരാണ് ഡ്രോപ്പ് ചെയ്യാനുള്ള മെയിൻ കാരണമെന്നു പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ഒരു ഗവൺമെൻ്റ് എയ്ഡുകളോ അല്ലെങ്കിൽ ഗവൺമെന്റി ൽ നിന്നുള്ള എന്താണ് പറയുക പൈസ കറക്റ്റായിട്ട് കിട്ടുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പിന്നെ വരുന്നത് പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ ഒരുപാട് ഉപയോഗം വരുന്നത് കൊണ്ട് തന്നെ കൃഷിയെ നശിപ്പിക്കപ്പെടുന്നുണ്ട് വെള്ളം നശിപ്പിക്കപ്പെടുന്നുണ്ട് വേസ്റ്റുകൾ ഒക്കെ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ ആ മണ്ണിന്റെ ഒരു നാച്ചുറൽ സ്വഭാവം ഒക്കെ മാറി ഇപ്പോൾ എല്ലാം അത്ര വലിയ വിളവുകൾ ഒന്നും കിട്ടുന്നില്ല അതിനൊരു അതിനെപ്പറ്റി ഒരു സ്റ്റഡിയോ അല്ലെങ്കിൽ സ്റ്റഡി ഒക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ലൈക്ക് അഗ്രിക്കൾച്ചറൽ സൊസൈറ്റിയിലും റിസർച്ചും കാര്യങ്ങളുമൊക്കെ നടക്കുന്നു എന്നൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴത്തെയൊരു ഇതിൽ കൃഷിയിലേക്ക് വരികയോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ കൃഷി എന്നു പറയുന്നത് ഒരു സൈഡ് ഹസൽ ആക്കി എടുക്കാനെ ആൾക്കാർക്ക് പറ്റു അതായത് കൈമാറി വന്ന കണ്ടങ്ങൾ ഏ ആ ഇപ്പം അടുത്ത ജനറേഷനിലേക്ക് കൈമാറി കിട്ടപ്പെട്ട കണ്ടങ്ങൾ മാത്രം അവർ കൃഷി ഫോളോ ചെയ്യാൻ നിൽക്കാറില്ല അതാരും ഇപ്പോൾ അങ്ങനെ കണ്ടം മേടിച്ച് അത് ഇപ്പം അത്യാവശ്യം നല്ലൊരു സെറ്റിൽ ആയി കഴിഞ്ഞാൽ കുറച്ചു കണ്ടം മേടിച്ച് കൃഷി ചെയ്യാം എന്നു വിചാരിച്ച് ആരും വരാറില്ല എന്തെങ്കിലും ഒരു വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ഡെയിലി വരുമാനം ഉള്ള ഒരു ജോബ് അതിന്റെ കൂടെ ഒരു സൈഡ് ഹസൽ എന്നുള്ള രീതിയിൽ ഒരു സീസണബിൾ ആണല്ലോ കൃഷി അല്ല സീസണിൽ ഉള്ളതാണല്ലോ കൃഷി അപ്പോൾ ഏതെങ്കിലും സൈഡ് ഹസല് പോലെ കൊണ്ട് പോവാനാണ് ആൾക്കാർ പരിശ്രമിക്കുക കൂടുതലും കൃഷി എന്നു പറയുമ്പോൾ കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് അവർ അവരെ കൃഷി എന്നു പറയുന്നത് അവരുടെ ഒരു ഒരു എന്താണ് പറയുക ഒരു ഒരു വർഷത്തെ ഫുൾ കഷ്ടപ്പാടാണ് അവർക്ക് ആ ഒരു കൃഷിയുടെ കൾട്ടിവേഷൻ കഴിഞ്ഞു കിട്ടുന്നത് കാരണം പല പ്രാവശ്യങ്ങളായിട്ട് കണ്ടത്തിലെ വെള്ളം വറ്റിക്കണം പിന്നെ വെള്ളം കയറ്റണം പിന്നെ ആവശ്യമുള്ള പെസ്റ്റിസൈഡ്സ് ഇ ടണം കറക്റ്റ് വിത്തു പോയി വാങ്ങിക്കണം പിന്നെ എന്താണ് അതിനു വേണ്ട മറ്റേ കുമ്മായം ലൈമ് സാധനങ്ങളൊക്കെ ഇടണം അതിനു പണിക്കാരെ നിർത്തണം എല്ലാം ഒരു ഓർഗനൈസ് ചെയ്തു ടേബിള് ചാർട്ട് ചെയ്തു മൈന്റിൽ കേട്ടോ അല്ലാതെ നമ്മൾ സാധാ ചെയ്യുന്ന കണക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല മൈന്ൽല് ടേബിൾ ചാർട്ട് ചെയ്ത് ഒക്കെ ചെയ്യുന്ന കാര്യാമാണ് അപ്പം

അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അതായത് ഫുൾ എമൗണ്ട് ഒന്നും അപ്പോൾ കിട്ടത്തില്ല ഹാഫ് എമൗണ്ടാണ് കിട്ടുന്നത് പിന്നാ ഫുൾ എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടി അവർ കുറേ നാൾ വെയ്റ്റ് ചെയ്തിരിക്കും അവറെ അടുത്തൊരു വർഷത്തെ അടുത്ത കൃഷിക്കും അവരുടെ വീട്ടിൽ കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും നടക്കുന്നത് അപ്പോൾ അതൊരു റിസ്കി നമ്മുടെ ഇപ്പോൾ അനുദിന ജീവിതത്തിൽ ജീവിതത്തിലെ ഡെയിലി ലൈഫ് എസ്സെൻഷസിൻ്റെ ഒക്കെ റേറ്റൊക്കെ ഭയങ്കര കൂടിയിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ അത് കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ അങ്ങു മാറി ഇപ്പോൾ